എനിക്ക് എപ്പോഴും മൂളാൻ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ മൂളിപ്പാടുന്ന പാട്ടുകൾ കൂടുതലും ക്രിസ്തീയ ഗീതങ്ങളാണ് ക്രിസ്തീയ ഗീതങ്ങൾ ഗീതങ്ങളിലോരു ഗീതമുണ്ട് നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശു പരാ ഈ ഗീതമാണ് എപ്പോഴും ഞാൻ കൂടെകൂടെ ചൊല്ലുന്ന പാട്ട് അതിനൊരു കാരണം ഞാനൊരു ക്രൈസ്തവനായിരിക്കെ തന്നെ എപ്പോഴും ഗീതങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുപാടൊരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാടൊരുപാട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതും ഗീതങ്ങളിലൂടെയാണ് ആ വരികൾക്ക് ഒരുപാടൊരുപാട് അർത്ഥമുണ്ട് കാരണം ഇന്നേ ദിവസം നമ്മളെ കാത്ത് പരിപാലിച്ച അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മളെ കാലിൽ ഒരു മുള്ള് പോലും കൊള്ളിക്കാതെ നമ്മളെ കാത്ത് പരിപാലിച്ച നമ്മുടെ ദൈവം അപ്രകാരം അങ്ങനെയുള്ള ദൈവത്തോട് നമ്മൾ നന്ദി പ്രകാശിക്കുകയാണ് കാരണം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഇപ്പം ഓരോ വിശ്വാസിയുടെയും ജീവിതം ഓരോ മനുഷ്യൻറെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻറെ ദാനമാണ് ദൈവത്തിൻറെ സൃഷ്ടിയാണ് ഓരോ മനുഷ്യനും അപ്രകാരം ഓരോ മനുഷ്യനും ദൈവമാണ് മനുഷ്യൻറെ ആയുസ്സ് നിർണയിക്കുന്നത് എപ്പോഴാണ് അവൻ ജനിക്കുന്നതെന്നും എപ്പോഴാണ് അവൻ മരിക്കേണ്ടതെന്നും അറിയുന്നതെല്ലാം ദൈവം ഒരുവൻ മാത്രമാണ് അപ്പോൾ ഒരു ദിവസം കൂടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ആയിരിക്കുക എന്നുള്ളത് ദൈവത്തിൻറെ വലിയൊരു അനുഗ്രഹവും ദൈവത്തിൻറെ വലിയ ഒരു സ്നേഹവുമാണ് അതിന് പ്രത്യുപകാരമായിട്ടാണ് ഈ ഗീതം പാടുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ ക്രൈസ്തവ വിശ്വാസം വീണ്ടും അനുസരിച്ച് ജീവിതത്തിൽ അനുഗ്രഹങ്ങളിലാണ് നമുക്കുണ്ടാകുന്ന കല്യാണങ്ങൾ അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടാവുക അതുപോലെ തന്നെ ഒരു വീടുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാഹനങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടാവുക എന്നുള്ളതൊക്കെ ദൈവത്തിൻറെ വലിയൊരു അനുഗ്രഹമാണ് വേറെ ഒരു കാര്യമെന്ന് പറയുന്നത് രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻറെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ നിരന്തരമായി ദൈവത്തോട് നന്ദി അതുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊരു വിശ്വാസം എനിക്ക് എൻറെ വീട്ടുകാരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഗീതം ഇപ്രകാരം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് നന്ദി നന്ദി എൻ ദൈവമേ അത് കൂടുതലും പാടുന്ന വേള എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷമാണ് കല്യാണങ്ങൾക്ക് ശേഷം ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് ഈ ഗീതത്തിലൂടെ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഗീതം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പാടുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നത്